ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതല് വാർത്തകളിൽ നിറഞ്ഞുനിൽക്കുന്നത് യുവത്വത്തിലെ പറ്റിയാണ് അതിൽ യുവലോകം യുവലോകമെന്ന് പറയാൻ പറ്റില്ല മൊത്തം കുഞ്ഞുങ്ങളും വലിയവരുമായ എല്ലാവരും മദ്യത്തിനും മയക്ക് മരുന്നിനും അടിമയാണ് എന്തോ എന്ത് അത് ഉപയോഗിക്കുന്നു കുഞ്ഞുങ്ങള് സ്വയം നശിക്കുന്നു മറ്റുള്ളവരെയും നശിപ്പിക്കുന്നു സമൂഹം നശിക്കുന്നു മദ്യം ഉപയോഗിക്കുന്നു മയക്കുമരുന്ന് പിന്നെ രാസലഹരികള് എന്തെല്ലാമാണെന്ന് എനിക്കറിയില്ല അതുപോലെയുള്ള മദ്യങ്ങൾ മയക്കുമരുന്നുകളെല്ലാം ഉപയോഗിച്ച് കൊച്ചുങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകള് എന്തോരമാണ് അത് ഡെയ്ലി കൊല്ലും കൊലപാതകവും അമ്മയെ അമ്മയെ കൊല്ലുന്നു അപ്പനെ കൊല്ലുന്നു ഈ സഹോദരങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന് അതുപോലെ അവർക്ക് എന്തെല്ലാമുണ്ട് പൈശാചിക പ്രവർത്തികളാണ് നാട്ടിൽ നടമാടുന്നതെന്നൊന്നും പറഞ്ഞാൽ തീരില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് ഓരോ ദിവസവും പിന്നെ ടി വി തുറന്നാലും പത്രങ്ങൾ തുറന്നാലും ഈയൊരു ഇതിനെപ്പറ്റി മാത്രമാണ് കേള്ക്കാനും കാണാനുമുള്ളത് ഇതു മാത്രമേയുള്ളൂ ലഹരി ഉപയോഗിക്കുന്നു കഞ്ചാവ് അതുപോലെത്തന്നെ ഇപ്പം എന്തോരം മയക്കുമരുന്നുകളാണ് ഉദ്യോഗസ്ഥ സംഘങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നാണെങ്കിലും എന്തോരം വീഡ് പിടിക്കുന്നുണ്ട് ജയിലിലാക്കുന്നുണ്ട് എന്നാലും ഇതിനൊരറുതി ഇതുവരെയുമായിട്ടില്ല ഇത് എത്രയും വേഗം ഇതിനൊരു അറുതിയാകണമെന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന യുവതലമുറയുടെ ഈ ഈ പോക്ക് നമ്മുടെ നാടിൻ്റെ നാശത്തിനും സമൂഹത്തിൻ്റെ നാശത്തിനും എല്ലാം ഇത് ഭയങ്കര വിപത്തിലേക്കാണ് പോകുന്നത് വരും തലമുറയുടെ നാശമാണ് ഇതിലൂടെ ലോകത്തിന് സംഭവിക്കുന്നത് അല്ലാതെയൊരു മേന്മയും ഇതുകൊണ്ടുണ്ടാകുന്നില്ല എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളില് വിടാൻ പേടിക്കണം കുഞ്ഞുങ്ങളെ പുറത്തുവിടാൻ പേടിക്കണം വീട്ടിലിരുത്താൻ പറ്റില്ല എല്ലാം ആർക്കുമൊരു പ്രായഭേദമന്യേ ഒരു മനുഷ്യർക്കും സമൂഹത്തില് ജീവിക്കാൻ ബുദ്ധിമുട്ട് എല്ലാ രീതികളിലും മദ്യപിച്ച് കുഞ്ഞുങ്ങൾ വീട്ടില് വരുന്നു മക്കളാണ് ഇവിടെ മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്നു അടിച്ചുകൊല്ലുന്നു തള്ളിയിടുന്നു ഉന്തിയിടുന്നു എന്തെല്ലാം പ്രവർത്തി ദുഷ്പ്രവർത്തികളിലൂടെ പൈശാചിക പ്രവർത്തികളിലൂടെയാണ് സമൂഹം ഇന്ന് വളരെ വില കൊടുക്കേണ്ട ഒരു അവസ്ഥയാണിന്ന് നാട്ടിൽ നടമാടുന്നത് അതിനൊരറുതി ഉണ്ടാകാന് എത്രയും വേഗം അധികൃതരും സമൂഹവും ഒന്നടങ്കം ഇതിനോട് എതിരെ പോരാടി അതിനൊരു അറുതി വരുത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളതും ആഗ്രഹിക്കാനുള്ളതും നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയില് വളർത്താൻ നമ്മളും മാതാപിതാക്കളായ നമുക്കും അതിയായ പങ്കുണ്ട് അതില് നമുക്ക് എന്നും നമ്മുടെ കൂടെയല്ലല്ലോ എന്നും നടക്കുന്നത് അവര് സമൂഹത്തില് ജീവിക്കേണ്ടവരല്ലെ അവരെ അതിനുള്ള ബോധവൽക്കരണം നടത്തി കുഞ്ഞുങ്ങളെ നന്മ തിന്മ തിരിച്ചറിയാനുള്ളൊരു അതുപോലെ സ്കൂളുകളിലും വീടുകളിലും അല്ലാതെ ക്ലാസ്സുകളിലും അതിന് അതിനോട് യോജിച്ച എല്ലാതരം പ്രവർത്തികളിലും അവർക്കൊരു സൗകര്യങ്ങളുണ്ടാക്കി അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണമെന്നും പിന്നെ അത് ഇതിനൊരറുതി വരുത്താൻ എല്ലാവരുടെയും സഹകരണം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും എല്ലാം അതിനോട് എല്ലാ അതങ്ങനെ ഓരോ രീതിയിലും അതിനെ നമുക്ക് എതിർത്ത് അതിനൊരറുതിയാകണമെന്ന് സമൂഹവും ഭരണകർത്താക്കളുടെ ഭാഗത്തുനിന്നും എല്ലാ രീതിയിലും ഇതിനോട് ഒരു ശതമാനം പോലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത അവസ്ഥയാണിതിന് നൂറ് ശതമാനവും ഇതിനെ എതിർത്ത് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് പറ്റുകയുള്ളൂ നമുക്കാർക്കുമിത് അനുകൂലിക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങള് നമ്മുടെ മക്കളും നമ്മുടെ എന്താണ് പറയുന്നത് കുഞ്ഞുങ്ങളെ ബോധവൽക്കരണം നടത്തണം ഒന്ന് മുതല് എല്ലാ സ്കൂളുകളിലും എല്ലാ ക്ലാസുകളിലും കുഞ്ഞുങ്ങൾക്ക് ക്ലാസുകള് നടത്തി അവരെ ഇതിൻ്റെ നന്മയും തിന്മയും പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങള് കൊടുക്കാന് സ്കൂളുകളിൽ നിന്നും വീടുകളിൽ നിന്നും മത സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം ഇതിനൊരു പരിഹാരം കണ്ടെത്തി അവരെ അതിലൂടെ വേണമവർക്ക് തിരിച്ചറിവ് നൽകി അവരെ രക്ഷിക്കണമെന്നാണ് ഈ സമൂഹത്തോട് പറയാനുള്ളത് അതുപോലെത്തന്നെ ഇതുണ്ടാക്കുന്നവരെയും ഇത് വിൽപ്പന നടത്തുന്നവരെയുമെല്ലാം നല്ല രീതിയിൽ ശിക്ഷിച്ച് ഇതിന് ഈ പുറം ലോകത്തേക്ക് ഈ സാധനങ്ങൾ എത്തിക്കാതെ അവരെയതിന് തക്കതായ ശിക്ഷ നൽകി മാതൃകാപരമായി നല്ല രീതിയിലുള്ള ശിക്ഷകള് അതുപോലെത്തന്നെ ഈ ക്രിമിനൽ ക്രിമിനലിസം കാട്ടി വിലസുന്നവരെയെല്ലാം പിടിച്ച് അതിന് തക്കതായ ശിക്ഷ സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിലുള്ള ശിക്ഷയൊക്കെ നടപ്പാക്കണമെന്നും എല്ലാമാണ് ഞങ്ങള്ക്ക് പറയാനുള്ളത് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെയൊരു അറുതി വന്ന് ഈ ലഹരിയെന്ന മഹാവിപത്തിനെ ലോകത്ത് നിന്ന് തുടച്ചുമാറ്റാനുള്ളൊരു സാഹചര്യം എല്ലാ ഭരണകർത്താക്കളുടെയും ഭാഗത്തുനിന്നും സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാക്കി നമുക്കെടുക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ